നമ്മുടെ ഭാഷാ വൈവിധ്യം ഒത്തിരി ഭയങ്കരമാണ് ഹിന്ദിയാണെങ്കിലും അതിനു പുറമെ ഇപ്പോൾ സംസാരിക്കുന്ന മലയാളം മലയാളമൊക്കെ ഔദ്യോഗികമാണ് അതുപോലെ തന്നെയും മലയാളത്തിൽ തന്നെ പല രീതിയിലുള്ള സ്ലാങ്ങുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് ഹിന്ദി ഒരു ഒത്തിരിയധികം പേർക്ക് പണ്ട് അറിയത്തില്ലായിരുന്നു ഉണ്ടെങ്കിലും ഇപ്പോൾ സ്കൂളുകളിലൊക്കെ വളരെ നിർബന്ധമായിട്ട് പഠിപ്പിച്ചു വരുന്നതുകൊണ്ട് ഹിന്ദി ഒത്തിരി പേർക്ക് അറിയാം പിന്നെ അതാത് ലോക്കലായിട്ടുള്ള ഭാഷകൾ മലയാളം ഉറുദു കന്നഡ തമിഴ് ബംഗാളി അങ്ങനെയുള്ള പല ഭാഷകളാണെങ്കിലും അത് നന്നായിട്ട് ഉപയോഗിക്കാൻ എല്ലാവർക്കും അറിയാമെങ്കിലും ഹിന്ദി പൊതുവായിട്ട് പല കാര്യങ്ങൾക്കും ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നതുകൊണ്ടും പല ഭരണ ഭാഷ അതിലേക്കൊക്കെ ആവുന്നതുകൊണ്ടും പലപ്പോഴും ഒത്തിരി പേർക്ക് ഇത് അറിയത്തില്ല പിന്നെ ആകെ അറിയുന്നതെന്ന് വച്ചാൽ ഇനി അങ്ങോട്ട് വരുന്ന തലമുറയ്ക്ക് നന്നായിട്ട് ഹിന്ദി അറിയാൻ പറ്റും സ്കൂളുകളിലൊക്കെ വളരെ നിർബന്ധമായിട്ട് പഠിപ്പിക്കുന്നു നേരത്തെ നമുക്ക് പലപ്പോഴും ഇപ്പോൾ സെക്കൻ്റ് ലാങ്ക്വേജായിട്ട് ഹിന്ദി എടുക്കുന്നവരൊക്കെ ഉണ്ട് എന്നാൽ തന്നെയും അങ്ങനെ ഒത്തിരി പേർ അങ്ങനെ ഉപയോഗിച്ചു കണ്ടിട്ടില്ല പിന്നെ ഹിന്ദിയൊക്കെ ഉപയോഗിക്കുന്ന ഇപ്പം കേരളത്തിനു പുറത്ത് ജോലി ചെയ്യുന്ന ഇപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് പുറത്ത് ഗൾഫ് നാടുകളിലൊക്കെ ജോലി ചെയ്തു തിരിച്ചു വരുന്ന ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ പിന്നെ ഇപ്പം മുടിവെട്ട് കടയിൽ ചെന്നാൽപ്പോലും ഹിന്ദിക്കാരൊക്കെ ആയതുകൊണ്ട് പലപ്പോഴും ചെറിയ രീതിയിലുള്ള ഹിന്ദി എല്ലാവരും അത്യാവശ്യം ഉപയോഗിക്കിനായിട്ട് പറ്റുന്നുണ്ട് ഇപ്പം അതിനു പുറമെ ഉപയോഗിക്കുന്ന ഭാഷ ഇതൊക്കെയാണ് പിന്നെ ഇംഗ്ലീഷ് കുറേ വളരെ കുറച്ചാണെങ്കിലും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒത്തിരി അധികം ആളുകളുണ്ട് ഇപ്പം പുറം രാജ്യങ്ങളിലേക്കൊക്കെ ഒത്തിരി പേർ ട്രൈ ചെയ്യുന്നും ഉണ്ട് അടുത്തൊരു തലമുറയ്ക്കൊക്കെ ഇംഗ്ലീഷൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഭാഷ വൈവിധ്യം നമ്മുടെ രാജ്യത്ത് ഒത്തിരി ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ചില കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും പുറത്ത് വേറെ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവരുടെ ഭാഷ പെട്ടെന്ന് മനസ്സിലാവാത്ത ഒരു പ്രശ്നമുണ്ടാവും എന്നാൽ സംസ്കാരമെല്ലാം മാറി വരുന്നതനുസരിച്ച് ഭാഷയിൽ ഉണ്ടാവുന്ന വ്യത്യാസവും അത് നമുക്ക് സ്വീകാര്യമായിട്ട് തന്നെ എടുക്കാവുന്നതാണ്